ഞാൻ പിന്നെ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തതാണ് ഹെഡ്സെറ്റ് എന്താണ് പറയുക ചാർജ് നിൽക്കുന്നില്ല സൗണ്ട് ക്ലാരിറ്റി വളരെ കുറവാണ് പിന്നെ നമുക്ക് വൈഫൈ അതായത് ബ്ലൂട്ടൂത്ത് കണക്റ്റ് ചെയ്യുമ്പം പെട്ടെന്ന് കിട്ടുന്നില്ല കണക്റ്റ് ആവുന്നില്ല അത് എന്താണ് പറയുക അതിന് കൊള്ളില്ലാത്തത് എന്നുവെച്ചാൽ അതാണ് പക്ഷേ നമുക്ക് അങ്ങനെ എനിക്ക് തോന്നി വേറെ കുഴപ്പം ആയിട്ടെന്ന് വെച്ചാൽ അങ്ങനെ തോന്നിയത് കുറച്ച് ലോങ്ങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ കണക്റ്റ് ആവുന്നില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചീപ്പ് റേറ്റ് ആണ് അധികം റേറ്റ് കുറച്ചാണ് വാങ്ങിയത് കാണാൻ നല്ല ക്യൂട്ട് ആണ് നല്ല രസമുണ്ട് പിന്നെ ആ കുഴപ്പമില്ല നല്ല കാണാനൊക്കെ ഓക്കെ ആണ് പക്ഷേ നമുക്ക് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് പിന്നെ കണക്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത്രയേ എനിക്ക് തോന്നിയുള്ളൂ